വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഈ ഒരു സമൂഹത്തിൽ നല്ല പ്രാധാന്യം ഉള്ളതാണ് ഇപ്പോൾ ലോകത്തെവിടെ നോക്കിയാലും നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കാണാമ്പറ്റും ദിവസം പത്രത്തിൽ വരണതാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനം എങ്ങനക്കെയാണ് പോകണത് ആരൊക്കെയാണ് പിന്നെ നിൽക്കണത് വിദ്യാഭ്യാസപരമായിട്ട് എങ്ങനെയാണ് ഒരു സംസ്ഥാനം പിന്നെ നിൽക്കണതെന്നൊക്കെ കാരണം ബീഹാർലക്കെ സാക്ഷരതാന്ന് പറയണത് ഭയങ്കര കുറവാണ് അവിടത്തെ ആള്ക്കാരൊക്കെ ഇപ്പം ആ ഒരു പണ്ടുള്ള ജോലി തന്നെ എപ്പോഴും പിന്തുടര്ന്ന് അതുമാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ് ഇനി കേരളത്തിലോട്ട് വന്നാൽ കര്ഷകരുണ്ട് പിന്നെ പ്രാഥമിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷേ കഴിവുണ്ടായിട്ടുകൂടി അത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വന്ന് അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നറിയാത്ത കുറെ ആള്ക്കാരാണ് ഗ്രാമങ്ങളിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ഒരു ചിന്ത പ്രകാരം അവർ ഗ്രാമത്തിത്തന്നെ നിൽക്കട്ടെ പുറം ലോകം ഒന്നും കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല അവരുടെ പാരമ്പര്യമായിട്ടുള്ള ജോലി ചെയ്യട്ടെ അല്ലെങ്കിൽ പലര്ക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ പുറം ഗ്രാമംത്തുന്ന് കല്യാണം കഴിക്കാന് വരെ ചിലര്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവരുടെ സംസ്കാരം അല്ലെങ്കിൽ കുടുംബങ്ങളൊന്നും സമ്മതിക്കുല കാരണം അതിന്റെയെക്കൊരു കുറവ് എന്ന് പറയണത് വിദ്യാഭ്യാസത്തിന്റെ അവിടെയാണ് കാരണം വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ സമൂഹം എങ്ങനെ മാറീരിക്കുന്നു അല്ലെങ്കിൽ നമ്മളെങ്ങനെ മാറണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുള്ളു അതിനോടുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ സമൂഹം മാറുമ്പം നമ്മളും മാറണം കാരണം നാടോടുമ്പം നടുവേ ഓടണംന്നാണല്ലോ സമൂഹത്തിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ വികസനങ്ങൾ സൗകര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് കാരണം വിദ്യാഭ്യാസം എന്നു പറയുന്നത് ഈ ലോകം ആവുല്ല ചിലപ്പം നാളെ വിദ്യാഭ്യാസത്തിനേക്കാട്ടിലും പ്രാധാന്യമുള്ള ലോ ലോകം ലോകമായിരിക്കും